എന്നെക്കുറിച്ച് പറയാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാന് അമ്മ അനിയത്തി ഏട്ടൻ അങ്ങനെ ഒരു കുടുംബമാണ് ഏട്ടന് അത്യാവശ്യം ഈ റെയിൽവേ കോൺട്രാക്ട് അങ്ങനത്തെ വർക്കും കാര്യങ്ങളുമൊക്കെയാണ് വീട്ടിൽ ഞാനപ്പോൾ ആളുടെ കൂടെ സഹായം കാര്യങ്ങളൊക്കെയായിട്ട് ഉണ്ട് പിന്നെ ഡ്രൈവറാണ് അത്യാവശ്യം ടാക്സി കാര്യങ്ങളൊക്കെ അതോടാറുണ്ട് പിന്നെ അച്ഛൻ മുമ്പേ മരിച്ചതാണ് വീട്ടിൽ ഒരു ചെറിയ ഈ നമ്മുടെ ഈ മരത്തിൻ്റെ ഈ കാർപെൻഡർ വർക്ക് പോലത്തെ ചെയ്യുന്നുണ്ട് പിന്നെ എന്താ പറയുക ആ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് ഇപ്പോൾ വർക്ക് ബിക്കോം വരെ പഠിച്ചിട്ടുണ്ട് അത്യാവശ്യം കു ഡ്രൈവിങ്ങാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ ആ ഫീൽഡ് തന്നെയാണ് താല്പര്യം പിന്നെ ഏട്ടന് ഇപ്പം അത്യാവശ്യം എല്ലാ നേരത്തും ഡ്രൈവിംഗ് ആ വർക്ക് കിട്ടാത്ത സമയത്ത് ഏട്ടൻ്റെ കൂടെ വർക്കിന് പോകും അവരുടെ ജോലിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്ക് അത്യാവശ്യം സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുവരുന്നത്